ഞാൻ കൂടുതലായിട്ട് ആസ്വദിക്കുന്ന നൃത്തം എന്നു പറയുന്നത് വെസ്റ്റേൺ ഡാൻസസ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം വെസ്റ്റേൺ ഡാൻസസ് ആണ് അതിനൊരു പ്രത്യേക സ്റ്റയിൽ ഉണ്ട് ഞാൻ കൂടുതലായിട്ട് കളിയ്ക്കാൻ ഇഷ്ടപ്പെടുന്നതും വെസ്റ്റേൺ ഡാൻസാണ് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷേ എനിക്ക് ആ ഡാൻസ് കൂടുതൽ ഇഷ്ടം കാരണം എൻ്റെ ബോഡി കൂടുതലായിട്ട് വഴങ്ങുന്നത് വെസ്റ്റേൺ ഡാൻസസിന് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കണം എനിക്ക് ആ ഒരു ഡാൻസിന് ആ ഒരു തരത്തിലുള്ള ഡാൻസിനോട് കൂടുതൽ ഇഷ്ടം പിന്നെ എനിക്ക് അത് അതിലുള്ള പാട്ടുകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അത്ര മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ അല്ലെങ്കിൽ കുറച്ച് ഹൈ ലെവലിൽ നിൽക്കുന്ന പാട്ടുകളാണ് ഇഷ്ടം കുറച്ച് വോയിസ് ഉള്ള പാട്ടുകളാണിഷ്ടം അതുകൊണ്ടുമാവാം എനിക്ക് വെസ്റ്റേൺ ഡാൻസസിനോട് കൂടുതൽ ഇഷ്ടമുള്ളത് അത് ഞാൻ അത് കൂടുതൽ ആസ്വദിക്കുന്നത് അതിൽ ഓരോരുത്തരും ചെയ്യുന്ന മൂവ്മെൻസ്സ് ഞാൻ ആസ്വദിക്കാറുണ്ട് ഓരോരോ ബോഡി ലാങ്ങുവേജസ് നമ്മള് കാണുന്ന സമയത്ത് നമ്മള് ശെരിക്കും ഇൻസ്പയർ ചെയ്യാറുണ്ട് വെസ്റ്റേൺ ഡാൻസസില് ഓരോ ബോഡി മൂവ്മെൻസ്സും എന്നെ ഇൻസ്പെയർ ചെയ്യാറുണ്ട് അതുപോലെ ഓരോ രീതിയിലുള്ള മൂമെൻസ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെസ്റ്റേൺ ഡാൻസസ്സിൻ്റെ അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും വെസ്റ്റേൺ ഡാൻസസ് ഇഷ്ടപ്പെടുന്നത്